ഹിന്ദി ഭാഷ എ ഏതൊരാളിനും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് അതുപോലെ മലയാളം പെട്ടെന്ന് ഒരാൾക്ക് മലയാളിക്ക് അല്ലാതെ ഒരു ഹിന്ദിക്കാരന് പെട്ടെന്ന് മലയാളം സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊൾ നോക്കുവാണെങ്കിൽ എൽകെജി സിബിഎസ് ഇ സ്കൂളിൽ എൽകെജി മുതലുളള ക്ലാസ്സുകളിൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മലയാളം മീഡിയത്തിൽ ആണെങ്കിലും ഗവർമെന്റ് ഗവർമെന്റ് സ്ഥാപനം ആണെങ്കിൽ അവിടെ അഞ്ചാം ക്ലാസ് മുതൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ പ്ലസ് വണ്ണും പ്ലസ് ടുവും നോക്കുവാണെങ്കിൽ അതിനകത്തു നമുക്ക് മലയാളവും തിരഞ്ഞെടുക്കാം ഹിന്ദിയും തിരഞ്ഞെടുക്കാം ലാങ്ഗ്വേജ് ആയിട്ട് അപ്പൊൾ ഹിന്ദി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാങ്ഗ്വേജ് തന്നെയാണ് മലയാളം അങ്ങനെയല്ല മലയാളം വേറെ ഒരു ഹിന്ദിക്കാരന് നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ ആർക്കും അങ്ങനെ സ് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഭാഷയാണ് മലയാളം